മൃഗങ്ങളെ അഭിമുഖീകരിക്കുകയാണെങ്കില് പൊതുവേ വെല്ലുവിളികള് നേരിടേണ്ടി വരും അവ നമ്മളെവിടെക്കേം പിന്നെ പോവുകയാണെങ്കില് അവരെ തീറ്റ കൊടുക്കാനും ഇതിനും ഒക്കെ ബുദ്ധിമുട്ടുതന്നെയാണ് അപ്പോള് ഞമ്മള് അതിന് വേണ്ടി അടുത്തുള്ള ആളുകളോടൊക്കെ നമ്മള് പറഞ്ഞിട്ട് അവരതിനുള്ളത് ചെയ്തു കൊടുക്കും പിന്നെ ഒരു രണ്ട് ദിവസത്തിനൊക്കാണെന്നു വച്ചെങ്കില് അതിന് പറ്റും കുറേ ദിവസത്തിനൊക്കെ പോവുകയാണെന്ന് വച്ചാല് നമ്മളാ മൃഗങ്ങളെ കൊണ്ടുപോവുക എന്നല്ലാതെ ഒന്നും ചെയ്യാന് പറ്റില്ല പിന്നെ കോയിക്കളൊക്കെയാണെന്ന് വെച്ചുകഴിഞ്ഞാല് കോയിക്കള് കോയിക്കക്കൊക്കെ അങ്ങനെ അസുഖങ്ങള് ഉണ്ടാവുന്നത് പിന്നെ കോയിക്കളക്കെ കോഴിപ്പേനൊക്കെ ഉണ്ടാവുന്ന സമയത്ത് ഞമ്മള്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് ഞമ്മളെ അവര് ചിറകിട്ടടിച്ചുമ്പോള് ഞമ്മടെ മേലുക്കൂടെയൊക്കെ ആ കോഴിപ്പേനൊക്കെ കയറി ഞമ്മളെ മേലൊക്കെ ആകെ മുറിയാകും ഭയങ്കര ചൊറിച്ചിലും ഇതും ഒക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുതന്നെയണ് എല്ലാം നമ്മളതിങ്ങനെ അഭിമുഖീകരിച്ച് ഇങ്ങനെ പോവുക എന്നല്ലാതെ ഒന്നും ചെയ്യാന് പറ്റുകയില്ല പിന്നെ ഇനി മൃഗങ്ങളാണെങ്കിലും അവര്ക്ക് അസുഖങ്ങളും ഇതൊക്കെ ഉണ്ടായാല് അവരെ പരിപാലിക്കണമെങ്കില് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാലിനസുഖങ്ങളും അതും ഇതക്കെയായാല് നമ്മളതുംകൂടി നമ്മള് മനുഷ്യരെ നോക്കുന്നതുമാതിരി തന്നെ അവരെ കാലുകളൊക്കെ നല്ല വൃത്തിയാക്കി കഴുകിയിട്ട് അത് മരുന്നൊക്കെ തേച്ച് ഇതാക്കണം എന്നുവെച്ചുകഴിഞ്ഞാല് നമ്മള് നല്ല ഇതില് നോക്കുകതന്നെ വേണം പിന്നെ അങ്ങനെ അവര്ക്കുള്ള വെള്ളവും ഇതും ഒക്കെ നമ്മള് അടുത്തുള്ള വീടുകളില്നിന്നൊക്കെ കൊണ്ടുവരണമെങ്കിലും അതൊക്കെ നല്ലതുതന്നെയാണ് അപ്പോള് അങ്ങനെ ഇത് കുറേ ദിവസത്തിനൊക്കെ പോവാണെന്നുവച്ചെങ്കില് നമ്മള് അവരെ കൊണ്ടുപോവുക അല്ലെങ്കില് ഒരാളെ നമ്മള് ഏല്പ്പിച്ചിട്ട് പോവുക അല്ലെങ്കില് അതൊരു ബുദ്ധിമുട്ടുതന്നെയാണ്